സാങ്കേതിക വിദ്യ പോലത്തെ സാങ്കേതികമായിട്ടുള്ള വിദ്യയുടെ ഉപയോഗം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ന്യുതനമായിട്ടുള്ള മാറ്റങ്ങളിലൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലും പഠനങ്ങളനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഫിൻലാൻഡിൽ നടത്തിയ ഒരു പഠനത്തിൽ അവർ നടത്തിയ ഫിൻലാൻഡിലെ പ്രഥമമായ ലോകത്ത് ഏറ്റവും സമ്പന്നമായ സംബുഷ്ടമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കുന്ന ഫിൻലാൻഡിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ അവർ പറയുന്നത് നമ്മൾ ഇനിയും പുറകോട്ട് പോകണം നമ്മൾ പുസ്തക വായനയിലേക്ക് നമ്മൾ പോകണം അതിൽ അതുപോലെ തന്നെ പുസ്തക വായനയിലൂടെയും എഴുത്തുകളിലൂടെയും ഉള്ള സഞ്ചാരമാണ് സ്വയര വിഹാരത്തിന് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും മുന്നേറ്റം നമുക്ക് മുന്നേറ്റം കുറിക്കാൻ ഒരു മാർഗ്ഗങ്ങളായിട്ട് അവർ കാണുന്നത് മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സാങ്കേതികമായിട്ടുള്ള വിദ്യകൾ യുവ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ വ്യക്തിബന്ധങ്ങളെ അത് തകർക്കുന്നു ഒരു മനുഷ്യൻ ഉണ്ടായി തീരേണ്ട ഒരു മനുഷ്വത്വം എന്ന് പറയുന്ന ഒരുപാട് സ്വഭാവം സംബുഷ്ടതകളുണ്ട് അലിഞ്ഞ് ചേർന്ന് നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇത് അയാളിൽ നിന്ന് നമ്മൾ ഒരു പലപ്പോഴും വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാങ്കേതികവിദ്യ ഒട്ടനവധി ന്യുതനമായിട്ടുള്ള മാർഗങ്ങളൊക്കെ കാട്ടി തരുന്നുണ്ടെങ്കിലും നാം വിദ്യ ഇല്ലാത്തവരായിട്ട് വല്ലപ്പോഴും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറുന്ന ആളുകൾ മാറാറുണ്ട് ഒക്കെ പറയാറുണ്ടെങ്കിലും ഇനിയും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങളും ഇതിൻ്റെ നേട്ടങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാനും മനസ്സിലാക്കാനും